പള്ളിയിലെ കണക്കെഴുതുന്ന ഒരു ജോലി കൂടെ ചെയ്യുന്നുണ്ടല്ലൊ അപ്പോള് അതുമായിട്ട് ബന്ധപ്പെട്ട ആ ജോലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഒന്നു പറയാമോ അ നമ്മള് ഞായറാഴ്ച രാവിലെ പള്ളിയില് ചെല്ലണം അവിടെ നമ്മുടെ പള്ളിയിൽ കൂടുന്ന വിശ്വാസികളുടെ സ്തോത്രക്കാഴ്ചയെടുക്കുന്നു അത് പൈസയെണ്ണി കണക്കുകളൊക്കെ കൃത്യമായിട്ടെഴുതി രേഖപ്പെടുത്തണം പിന്നെ നമ്മള് പള്ളിക്കകത്ത് അപ്പുറത്തെ കുരിശടിയില് നേർച്ചപ്പെട്ടിയെടുക്കണം അതും കൃത്യമായിട്ട് ഞ്ഞാലിരുന്ന് എണ്ണി നമ്മള് രെജിസ്റ്ററില് ചേർക്കണം പിന്നെ വിവാഹത്തിന് പള്ളിയിലാരെങ്കിലും വിവാഹം കഴിക്കുകയാണെങ്കിൽ അവര് വിവാഹത്തിൻ്റെ വിഹിതമായിട്ട് കുറഞ്ഞത് അയ്യായിരം രൂപയെങ്കിലും തരണം അപ്പോള് അതില് പത്ത് ശതമാനം കപ്യാർക്കും കാണിക്കണം പത്ത് ശതമാനം നമ്മുടെ രൂപതയ്ക്കുള്ളതാണ് രൂപതയ്ക്കെന്നു പറയാ ഈ വൈദിക വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൊടുക്കുന്നതാണ് എൺപത് ശതമാനം പള്ളിക്കും അങ്ങനെയാണതിൻ്റെ കണക്ക് പോവുന്നത് നെന്ന വാടകയായിട്ട് പതിനായിരം രൂപ ഇതാക്കണം അത് ബുക്ക് ചെയ്യുന്നവരതിൻ്റെ മൂന്നിലൊന്ന് നേരത്തെ പള്ളിയിലടയ്ക്കണം അത് നമ്മള് രജിസ്ട്രാക്കിയിടുന്ന അവർക്ക് അന്നേരം തന്നെ അതിൻ്റെ രസീത് കൊടുക്കും പിന്നെ ക്ലീനിങ് ചാർജുകാർക്ക് ഒരു രണ്ടായിരം രൂപ അടക്കണം പിന്നെ അച്ചന് എന്തെങ്കിലും സഹകരണമൊക്കെ ചെയ്യണമെങ്കിൽ നമ്മള് എപ്പോഴും അവിടെ പള്ളീലവിടെ കാണണം അച്ചൻ്റെ മാസാവസാനം ശമ്പളം കൊടുക്കണം പിന്നെ അതിൻ്റെയെല്ലാം കണക്കുകളെഴുതുന്നത് എൻ്റെ ശമ്പളം കപ്യാരുടെ ശമ്പളം അതെല്ലാമെഴുതണം പിന്നെ പള്ളിയിലെ മറ്റ് വരവുചെലവു കണക്കുകളൊക്കെയുണ്ട് നമ്മള് കറണ്ട്യാർജ്ടയ്ക്കുന്നത് വെള്ളക്കരം കൊടുക്കുന്നത് അതെല്ലാം എഴുതണം പിന്നെ ഇതിൻ്റെ മാസാന്ത്യക്കണക്കുണ്ട് അതിൻ്റെ ലെഡ്ജർ പോസ്റ്റെയ്യണം മാസാവസാനമാവുമ്പോള് നമ്മള് പള്ളിയിലെ രണ്ടോഡിറ്റര്മാരുണ്ട് അവരെ കൊണ്ട് ആ കണക്ക് ഓഡിറ്റെയ്തിട്ട് എല്ലാ മാസം രണ്ടാം ഞായറാഴ്ച പള്ളിയില് പ്രതിനിധിയോഗം കൂടും അപ്പോള് ഈ വരവുചെലവ് കണക്കുകളെല്ലാം പള്ളിയിൽ കൃത്യമായിട്ട് അവതരിപ്പിച്ച് പാസാക്കണം അതുപോലെ തന്നെ അവരുടെ ഓഡിറ്റ് റിപ്പോർട്ട് അതും പള്ളിയോഗത്തിൽ ഞാൻ തന്നെയാന്ന് വായിക്കുന്നത് അതും വായിച്ച് പാസാക്കണ്ടെയാണ് അങ്ങിനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് പിന്നെ വാർഷിക കണക്കുകൾ ശരിയാക്കി ബഡ്ജെറ്റും തയ്യാറാക്കി എല്ലാ വർഷവും ഏപ്രിൽ മാസം ആദ്യ ആഴ്ച പൊതുയോഗം വിളിച്ച് പാസാക്കിയെടുക്കണം എന്നിട്ടത് ചങ്ങനാശ്ശേരി അതിരൂപതയെക്കൊണ്ട് കണക്ക് കാണിച്ച് പാസാക്കിയെടുക്കുകയാണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്